ഹലോ അതേ ആ ഓക്കെ കരിമീൻ പൊള്ളിച്ചതു കൊണ്ട് കരിമീൻ ഫ്രൈയുണ്ട് താറാവ് കറി വച്ചതു കൊണ്ട് എന്തു വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി എന്തു വേണമെന്നു പറഞ്ഞോ ആ ആ കരിമീൻ ഫ്രൈക്ക് നൂറ്റെൺപത് രൂപയും കരിമീൻ പൊള്ളിച്ചതിന് മുന്നൂറ് രൂപയുമാണെ പിന്നെ നമുക്കല്ലാതെ എല്ലാമുണ്ട് പൊറോട്ട ചപ്പാത്തി എല്ലാ ഐറ്റവും ഉണ്ടിവിടെ അതു കൊണ്ട് നമുക്ക് ഹോം ഡെലിവറിയുണ്ട് അപ്പം നിങ്ങൾക്കവിടെ കൊണ്ടു തരണമോ അതോ നിങ്ങൾ വന്നു വാങ്ങിക്കുകയാണ് അതെന്തു പറഞ്ഞാലും ഞങ്ങൾക്കിവിടെ കസ്റ്റമറുണ്ട് എന്തു വേണമെങ്കിലും ചെയ്തു തരാവുന്നതാണ് ആ ഓക്കെ അയ്യോ അതേയതേയതേ നമ്മളിവിടെത്തന്നെ നമുക്ക് അതിനു വേണ്ട കുളങ്ങളും കാര്യങ്ങളുമെല്ലാമുണ്ട് ഇവിടെ നിന്നു തന്നെ പിടിച്ച് നമ്മളന്നേരം തന്നെ ഫ്രഷ് സാധനമാണ് ഇവിടുത്തെ കാരണം ആരും കുറ്റം പറഞ്ഞിട്ടില്ല കാരണം പോകുന്നവർ വാങ്ങിച്ചു കൊണ്ടു പോകുന്നവർ പിന്നെയും പിന്നെയും വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ സാധനങ്ങളത്രയ്ക്ക് നല്ലതാണ് നമ്മളിവിടെ അങ്ങനത്തെയെ കൊടുക്കത്തുള്ളു ഓക്കേ ആ ഓക്കേ ഓക്കേ ആ ആ ഓക്കെ കിട്ടുമല്ലോ ആ പിന്നെ നമുക്ക് പൊറോട്ടയുണ്ട് ചപ്പാത്തിയുണ്ട് പിന്നതിൻ്റെ കൂടെ താറാവ് കറി വെച്ചതു കൊണ്ട് ആ അങ്ങനേ പിന്നെ മപ്പാസുണ്ട് കരിമീൻ മപ്പാസുണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അത് എല്ലാ മലയാളികൾക്കു ഇഷ്ടപ്പെടുന്നതാണ് അപ്പവും താറാവിറച്ചിയുമുണ്ട് എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ഹോം ഡെലിവറി ഇവിടെയുണ്ട് പറഞ്ഞാൽ മതി ആ സമയത്ത് നിങ്ങളെവിടെയാണ് ഏത് സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് നിങ് ഓക്കേ ആ ആ ഓക്കെ ഓക്കെ ആ ആ തരണം ആ ഓക്കെ എത്തിച്ചു തരാമല്ലോ ആ അത് നമുക്ക് ഗൂഗിൾ പേ ചെയ്യൂ അല്ലെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ അവിടെ വരുന്നുണ്ടല്ലോ സാധനം കൊണ്ട് അപ്പം നിങ്ങളവരുടെ കയ്യിൽ കൊടുത്തയച്ചാലും മതി നമ്മുടെ ആൾ തന്നെയാണ് അത് ഒരു കുഴപ്പവുമില്ല ഓക്കെ വിളിക്കാമല്ലോ ആ വിളിക്കാമല്ലോ പിന്നെ നിങ്ങൾക്ക് വേറെ വല്ലതും വേണോ വേറെ എന്തെങ്കിലും കൂടിയിതിൻ്റെ കൂടെ ആ മതി ആ ഓക്കെ ഓക്കെ ആ ഓ നിങ്ങളുടെ സ്ഥലം പറഞ്ഞില്ലല്ലോ സ്ഥലം പറഞ്ഞില്ലല്ലോ കരുവാറ്റയാണ് ആ ഓക്കെ വാഹന സൗവ